ഒരു പ്രദേശത്ത് പെരുമാറ്റച്ചട്ടം അത് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിന്റെതായിട്ടുള്ള രീതികള് നമുക്ക് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ സർക്കാര് തലങ്ങളിൽ അവർക്കവരുടേതായിട്ടുള്ള പദ്ധതികള് നിരത്തേണ്ടിവരും അതുപോലെതന്നെ നമ്മുടെ പണം അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ സാധിക്കത്തില്ല അതെല്ലാമൊന്ന് നിർത്തേണ്ടിവരും കാരണം ആ പെരുമാറ്റച്ചട്ടം തീരുന്നതുവരെ നമുക്ക് പിന്നെ കാര്യങ്ങളെല്ലാം പുനരാവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ പിന്നേ അത് തുടരാൻ സാധിക്കത്തുള്ളു ഇപ്പം നമ്മുടെ കായിക മേഖല പല നിർദേശങ്ങളിതിനെ പിന്തുടരുന്നുണ്ട് കാരണം എന്താണ് നമുക്ക് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചുകഴിഞ്ഞ വലിയ രീതിയിൽ ടൂർണമെൻറ്റുകളൊന്നും നടത്താൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് വലിയരീതിയില് സമ്മാനങ്ങളൊക്കെയുള്ള ടൂര്ണമെൻറ്റുകളൊക്കെ നടത്താനങ്ങനെ സാധിക്കത്തില്ല കാരണം അതുകഴിഞ്ഞാൽ മാത്രമെ നമുക്ക് സാധിക്കത്തുള്ളു അതുപോലെതന്നെ പല രീതിയിലുള്ള മാറ്റങ്ങള് നമുക്കതിന് കാണാൻ സാധിക്കുന്നു കാരണം ഇലക്ഷൻ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങള് ഇലക്ഷൻ വലിയ രീതിയിൽ സുതാര്യമായി നടത്താൻ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹമത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താലെ പറ്റുകയുള്ളു തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും അതനുസരിച്ച് മാറ്റങ്ങളുള്ളു കാരണം കായിക മേഖല ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്